മത്സ്യബന്ധന യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ വിജയമായിക്കഴിഞ്ഞാൽ വന്നതിനു ശേഷം എന്നുള്ള രാത്രി നല്ല ആഘോഷങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ മത്സ്യബന്ധനം നമുക്കൊരു സന്തോഷമാണ് ആഘോഷിക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറേ വീട്ടുകാരും എല്ലാവരും കൂടി ഒന്നുചേർന്ന് ക്യാമ്പ് പോലെയൊക്കെ ആഘോഷിക്കുകയാണ് ചെയ്യാറ് കൂടുതലും മത്സ്യബന്ധനം എന്നുവെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് വേറെ ഒരു പണിയില്ല മത്സ്യബന്ധനം ബന്ധനം യാത്ര വിജയകരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അതേപോലെ തന്നെ മത്സ്യബന്ധനത്തിന് ഇടയിൽക്കൂടി പരസ്പരം സംസാരിക്കുകയും പരസ്പരം ഊർജ്ജം നൽകുകയും എല്ലാം ചെയ്യും അതിലൊരുമിച്ച് ഒരുമിച്ച് ഉണ്ടാകും ഒരുമിച്ച് കിടക്കുകയും അതിലൊരുമിച്ച് പാട്ടുകൾ പാടുകയും എല്ലാം ചെയ്യും അതേപോലെ തന്നെ രാത്രി കാലങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരുമിച്ച് രാത്രി ചീട്ട് കളിയും അങ്ങനെ കളിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് മത്സ്യബന്ധനം നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത് ആണ് അതുപോലെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാലും എല്ലാം അങ്ങനെ ആണ് പാട്ടുകളൊക്കെ പാടും എന്ന് വെച്ചു കഴിഞ്ഞാൽ കുടുംബക്കാരെല്ലാവരും കൂടി ഒത്ത് ഇരുന്ന് ഞങ്ങൾ പാട്ടൊക്കെ പാടാറൊക്കെ ഉണ്ട്